ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പുസ്തകങ്ങൾ ഒന്നും വായിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഞാൻ കൂടുതലായിട്ടും സിനിമ ടി വി ഷോ അങ്ങനത്തെയൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്താണ് പറയുക ഇഷ്ടപ്പെട്ട ടി വി ഷോ എന്നൊക്കെ പറയുവാണെങ്കിൽ എന്താണ് പറയുക കോമഡി ഷോസ് ആണ് കൂടുതലും നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ കോ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടായിരുന്നു അതിൽ കുറേ കോമഡി ഷോസ് ഒക്കെ ഇങ്ങനെ പറയുക കുറേ ആൾക്കാർ കോമഡി രീതിയിൽ ഷോ ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്കിറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അവർ അത് നല്ല രീതിക്ക് തന്നെ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള കഴിവൊക്കെ അവർക്ക് നല്ല രീതിക്കുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ എന്താണ് പറയുക സന്തോഷത്തിൽ എത്തിക്കാനൊക്കെ അവർക്കതിലൂടെ സാധിക്കുന്നുണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാനൊക്കെ അവർക്ക് കഴിയും പിന്നെ സിനിമ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട് അതിൽ ഇപ്പോൾ ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ പ്രകാശൻ പരക്കട്ടെ അങ്ങനത്തെ സിനിമകളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് കൂടുതലും ഇപ്പോൾ പുതിയ തലമുറകളിലെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഭൂരിഭാഗം സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും എനിക്ക് എന്താണ് പറയുക വളരെ കുറച്ച് സിനിമകളാണ് സാധാരണ ഇഷ്ടപ്പെടാറ് എന്നാലും കുറച്ച് സിനിമകളൊക്കെ പണ്ടത്തേതും എനിക്കിഷ്ടമാണ് നരൻ എന്നൊക്കെ പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ പിന്നെ നരസിംഹം അങ്ങനത്തെ സിനിമകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോഹൻലാലിൻ്റെ ഒരു വലിയ ആരാധകനാണ് ഞാൻ അപ്പോൾ അതുപോലെ കുറേ സിനിമകളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുമുണ്ട്